രാധാനന്ദ് സിക്ദർ മാത്തമാറ്റീഷൻ കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് മൗണ്ട് എവറെസ്റ്റ് പത്താനിസ് സാമന്താ അസ്ട്രോണമർ ജഗദീഷ് ചന്ദ്രബോസ് പോളി മാത്ത് ഫാദർ ഓഫ് റേഡിയോ സയൻസ് ശിവറാം കശ്യപ് ബോട്ടണിസ്റ്റ് എം ഒ പി അയ്യങ്കാർ ബോട്ടണിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ചന്ദ്ര ശേഖരാ വെങ്കിട രാമൻ സി വി രാമൻ ഫിസിസ്റ്റ് ശ്രീനിവാസ രാമാനുജൻ മാത്തമറ്റീഷൻ സത്യ ചുരു ലോ ന്യൂട്രിലിസ്റ്റ് ആൻഡ് ഓറിന്തോളജിസ്റ്റ് സിസിർ കുമാർ മിത്ര റേഡിയോ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സൈ ഫിസിസ്റ്റ് ബീർബൽ ഷാഹ്നി പാലിയോ ബോട്ടണിസ്റ്റ് കെ ആർ രാമനാഥൻ ഫിസിസ്റ്റ് ആൻഡ് മെട്രോളജിസ്റ്റ് മെറ്റീരിയോളജിസ്റ്റ് കെ അനന്ത റാവു മാത്തമാറ്റീഷൻ മേഹാനന്ത് സാഹ അസ്ട്രോ ഫിസിസ്റ്റ് പ്രശാന്ത് ചന്ദ്ര മഹല്ലാ നോബിസ് സൈൻ്റിസ് സാറ്റിസ്റ്റിഷ്യൻ ധ്യാൻ ചന്ദ്ര ഘോഷ് കെമിസ്റ്റ് സുന്ദർ ലാൽ ഹോറ ഇത്തിയോളോജിസ്റ്റ് സ സലിം അലി ഓറിയെന്തോളജിസ്റ്റ് ആൻഡ് നാച്ചുറാലിസ്റ്റ് കെ എസ് കൃഷ്ണൻ ഫിസിസ്റ്റ് എം എസ് കൃഷ്ണൻ ജിയോളജിസ്റ്റ്